കാലക്രമേണ മലയാളഭാഷയെന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്നും പല ഭാഷയിൽ നിന്നും വ്യതിചലിച്ച് വന്ന ഒരു ഭാഷയാണ് മലയാളം പണ്ടൊക്കെയാണെങ്കിൽ മലയാളമെന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര കഷ്ടമാണ് പറയാൻ എല്ലാവർക്കും അതിൻ്റെ രീതിയും കാര്യങ്ങളുമൊക്കെ ഭയങ്കര കഷ്ടമാണ് പറയാൻ പല പല ലാംഗ്വേജസും പല കാര്യങ്ങളും മലയാളത്തിലുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പോലെ മലയാളം അത്ര ഈസി ആയിരുന്നില്ല പണ്ട് പണ്ടെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമായിരുന്നു കാരണം പല പല ഭാഷകളിൽ നിന്ന് വ്യതീചലിച്ച് വന്ന ഒരു ഭാഷയാണ് മലയാളം എന്നായത് കൊണ്ട് തന്നെ അമ്പത്താറ് അക്ഷരങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തില് മലയാളം എന്ന് പറയുമ്പോൾ ഭയങ്കര അക്ഷര സ്ഫുടതയോട് അക്ഷര സ്ഫുടതയോട് കൂടി സംസാരിക്കുന്ന ഒരു ഭാഷ തന്നെയാണ് മലയാളം പിന്നെ ഇന്ന് ഇപ്പോൾ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂര് പാലക്കാട് അങ്ങനെ ഓരോ ജില്ലയിലൊക്കെ ഓരോ ജില്ലയിലും മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷെ അവരുടെ സംസാര രീതി വ്യത്യാസമായത് കൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തില് ഭയങ്കര മലയാളം സംസാരിക്കാൻ ഭയങ്കര സിമ്പിൾ ആയിപ്പോയി ഇപ്പൊൾ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇപ്പോൾ പുറത്തുനിന്ന് ഹിന്ദിക്കാര് ബംഗാളീസാണങ്കിലും വന്നാൽ തന്നെ ഇപ്പോൾ മലയാളമൊക്കെ എത്ര പെട്ടന്നാ പഠിക്കുന്നത് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് അവർക്ക് പഠിക്കാൻ പക്ഷെ പണ്ടത്തെ മലയാളം വച്ച് കംപെയറ് ചെയ്യുകയാണെങ്കിൽ ഇമ്പോസ്സിബിൾ അല്ല ഐ മീൻ പോസ്സിബിൾ അല്ല ഭയങ്കര ഡിഫറെൻസുണ്ട് പണ്ടത്തേയും ഇന്നത്തേയും തമ്മില് കാരണം ഈ ഓരോ ജില്ലകളിലോട്ട് മലയാളം തിരിഞ്ഞത് കൊണ്ട് തന്നെയാണ് പിന്നെ അതുപോലെ സ്കൂള് സ്കൂളിലാണെങ്കിലും മലയാള ഭാഷ നന്നായിട്ട് തന്നെ പഠിപ്പിക്കുന്നതുകൊണ്ട് സ്കൂളിലാണെങ്കിലും ഒരു സബ്ജെക്റ്റിനോട് കൂടെ തന്നെ മലയാളഭാഷ ആഡ് ചെയ്തിരിക്കുന്നത് അതിന് അതുകൊണ്ട് തന്നെയാണ് പോരാത്തതിന് നമ്മുടെ ഒരു മാതൃഭാഷ കൂടിയാണ് മലയാളം അതുകൊണ്ട് തന്നെ മലയാള ഭാഷ അറിഞ്ഞിരിക്കണം അതിൻ്റെ ഡീപ്പായിട്ട് മനസ്സിലായില്ലങ്കിലും അത്യാവശ്യം അത്യാവശ്യം മാതൃഭാഷ ആയത് കൊണ്ട് തന്നെ അത്യാവശ്യം അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ള ബോധം ഉള്ളത് കൊണ്ട് തന്നെയാണ് സ്കൂൾസിലും സ്കൂളുകളിലും മലയാളം എന്നുള്ള ഒരു ലാംഗ്വേജ് ഒരു ബുക്ക് നമുക്ക് തന്നേക്കുന്നത് പിന്നെ ഓരോ ഓരോ ജില്ലയിലും മലയാളം സംസാരിക്കുന്നതുകൊണ്ട് തന്നെ പണ്ടത്തെക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഭാഷ കൂടി ആയി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ മലയാളം